ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് ഒരു ഫർണീച്ചറ് അഥവാ അതായത് ഒരു അലമാര മേടിച്ചതിനെക്കുറിച്ചാണ് പറയുന്നത് ഞങ്ങളിങ്ങനെ ഫങ്ക്ഷന് ഒരു വീട്ടില് കുടുംബക്കാര് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോൾ ഒരു ഫർണീച്ചറ് കാണാൻ ഇടയായി അപ്പം നല്ല രസമുള്ളൊരു ഫർണീച്ചറോക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തൊരു ഫണീച്ചറ് മേടിക്കണം എന്ന് ഞാനും ഹസ്ബൻഡും അവിടുന്ന് നിന്ന് തന്നെ ഞങ്ങള് തീരുമാനം എടുത്ത് എന്തായാലും മേടിക്കണം ഇങ്ങനത്തെ ഒന്ന് എന്ന് അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് തന്നെ പിന്നെ വേറെ ഷോപ്പിലേക്ക് പോയി വേറെ ഷോപ്പിലേക്ക് പോയി ഫണീച്ചറിൻ്റെ ഷോപ്പിലേക്ക് പോയി അങ്ങനെ അവിടുന്ന് നമ്മള് നോക്കി നോക്കിയപ്പോൾ നല്ലത് ഏതാന്ന് നോക്കിയിട്ട് ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെന്നു അങ്ങനെ ചെന്ന് ഫണീച്ചറൊക്കെ അങ്ങനെ നോക്കി നല്ലയാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഒന്ന് ഞങ്ങളെടുത്തു ഇരുപതിനായിരം രൂപേൻ്റെ ആയിരുന്നു ആ ഫർണീച്ചറ് അങ്ങനെ ഞങ്ങളത് അവര് തന്നെ വണ്ടിയിലൊക്കെ കേറ്റി വീട്ടിലേക്ക് കൊണ്ട് തരികയും നമ്മള് മൊത്തത്തിലുള്ള ഇരുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ട് വന്ന് വീട്ടില് കൊണ്ട് വന്ന് അയിൻ്റെ താക്കോല് കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പം ഞങ്ങളെന്തക്കെ ഇപ്പോൾ താക്കോലെടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കുക എന്ന് വിചാരിച്ച് തുറന്ന് നോക്കുമ്പോൾ പൂട്ടിൻ്റെ അവിടുന്ന് തന്നെ പൊട്ടി വരികയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ അലമാര ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ ചീത്ത പറഞ്ഞ് എന്താ ഇങ്ങനത്തെയൊക്കെ മേടിച്ച് വന്നിട്ടുള്ളത് നല്ല സാധനമല്ല നല്ല മരമല്ല എന്നൊക്കെ പറഞ്ഞു എല്ലാവരും